ജോലിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പുറത്ത് പല ഹോബികളും ഉണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ട് അപ്പം ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഇടക്ക് പോകാറുണ്ട് പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട് ഫുട്ബോള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴ ടൈമിൽ ഒക്കെ എനിക്ക് ഭയങ്കര കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ചെളിയിൽ വീണും നല്ല രസമാണ് ചെളിയിലൊക്കെ വീണും വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമാണ് അങ്ങനെ കളിയ്ക്കാൻ അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഹോബി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെറിയ പിള്ളേരുടെ കൂടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ ഒക്കെ ഒരു പ്രത്യേക രസമാണ് പിന്നെ അല്ലാണ്ടും കളിക്കാൻ രസമാണ് അപ്പം പാടത്തും വാരമ്പത്തൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിക്കറ്റ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഷട്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഷട്ടില് വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് മുറ്റം അപ്പം അതിൽ ഷട്ടില് എന്നും കളിക്കാനുണ്ട് അപ്പം അതൊക്കെ ഒരു രസമാണ് വൈകുന്നേരം വൈകുന്നേരം ടൈമിൽ ഒരു നാല് മണി തൊട്ട് അഞ്ച് മണി വരെ ക്രിക്കറ്റ് കളിക്കാനും അത് കഴിഞ്ഞിട്ട് ഷട്ടില് കളിക്കാനും നല്ല രസമാണ് അപ്പം അതൊക്കെ കളിക്കാറുണ്ട് അപ്പം നല്ല രീതിയിലുള്ള കളികൾ അങ്ങനെയും കളിക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്